ഹലോ ഡോക്ടർ ആഹ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് പനി ആണ് പിന്നെ ജലദോഷം ഉണ്ട് തലവേദന ഉണ്ട് ചുമ ഉണ്ട് രാഹുൽ മീനങ്ങാടി ഇരുപത്തേഴ് ആഹ് നല്ല പനി ഉണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ട് ഇന്നലെ ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രാത്രി വന്ന് കഴിഞ്ഞിട്ടാണ് പനി പിടിച്ചത്

ഇല്ല നെഞ്ചുവേദന ഉണ്ട് ചുമ ഇല്ല ചുമയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതുണ്ട് കഫക്കെട്ട് അങ്ങനത്തെ കുറച്ച് ഇതുണ്ട് അസ്വസ്ഥത ഉണ്ട് ഞാൻ പാരസിറ്റമോൾ കഴിച്ചിരുന്നു ആഹ് ഇല്ല കുറവില്ല ആഹ് ഇല്ല അത് നോർമലായിട്ട് ഒരെണ്ണം കഴിച്ചു തലവേദന ഉണ്ടായിരുന്നു പനി ആയിരുന്നപ്പോൾ കഴിച്ചതാണ് ആഹ് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ രാവിലെ ആയപ്പോൾ പിന്നെയും കൂടി ഇല്ല ഭക്ഷണത്തിനോട് വല്ല ഭയങ്കരം ഒരു കഴിക്കാനൊന്നും പറ്റുന്നില്ല കയ്പ്പുണ്ട് ആഹ് കയ്പ്പുണ്ട്

ആഹ് വീടിൻ്റെ തൊട്ട് അപ്പുറത്ത് ഒരു വീട്ടിൽ ചേട്ടന് പനി ഉണ്ട് ആഹ് ആഹ് ഫുൾ അയാൾക്ക് ഡെങ്കിപ്പനി ആയിരുന്നു ആഹ് ഓക്കെ ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് ആഹ് ഓക്കെ